മറ്റു ജില്ലയിൽ നിന്ന് ജില്ലക്കാരെ അപേക്ഷിച്ചു വയനാട്ടുകാർക്കൊരു പ്രത്യേകതയുണ്ട് അവർ അവരുടെ സംസ്ക്കാരത്തെയും പരിസ്ഥിതിയെയും മലിനമാക്കാതെയും അത് സംരക്ഷിക്കാൻ എന്നും മുൻപന്തിയിൽ ഉള്ള ഒരു ആൾക്കാരാണ് വയനാട്ടുകാർ അവരുടെ ചുറ്റുപാടുകളും അവരുടെ സംസ്ക്കാരത്തെയും എന്നും കൂടെ ചേർത്തുപിടിക്കാൻ താൽപര്യമുള്ളവരും ആഗ്രഹമുള്ളവരാണ് അവർ സംസ്ക്കാരം നമ്മുടെ സംസ്ക്കാരം എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു പ്രാദേശികമായിട്ട് അല്ലെങ്കിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ സംരംഭങ്ങൾ എല്ലാം എല്ലാത്തിനും കുറേ സംരംഭങ്ങ ളുണ്ട് വയനാട്ടിൽ തേയില അതൊരു സംരംഭമാണ് നല്ല കാപ്പി കിട്ടണമെങ്കിൽ തേയിലക്കാപ്പി കിട്ടണമെങ്കിൽ ഇരിട്ടിയിലും വയനാട്ടിലും വരണം അങ്ങനെ ഒരു ഇതുണ്ടല്ലോ വയനാട്ടിൽ കുറേ തേയിലയുണ്ട് തേയിലത്തോട്ടങ്ങൾ അതിപ്പോഴും സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാപ്പി കാപ്പി കുരുമുളക് വിളകൾ റബ്ബർ ഇതൊക്കെ എന്താ പറയുക അതൊക്കെ നമ്മുടെ പിന്നെ പ്രകൃതിയിലെ അതൊക്കെ ഇവിടെ നിന്ന് ഇവിടെ കുറേ ഉള്ള സാധനങ്ങളാണ് അതേപോലെ ഒരു മരം നട്ടു വെട്ടിക്കളഞ്ഞാൽ അതു വെച്ചുപിടിപ്പിക്കാനും അറിയാം നശിപ്പിച്ചു കളയില്ല ഫ്ലാറ്റ് സമുച്ചയം ഒത്തിരി ഇല്ലാത്തൊരു നാടാണ് വയനാട് അപ്പോൾ ഒരു ഉള്ള സ്ഥലത്തൊക്കെ ഒരോ ഫ്രൂട്സ് ആയാലും മരങ്ങളായാലും വച്ചുപിടിപ്പിക്കുന്നുണ്ട് പിന്നെ അതേപോലെത്തന്നെ സംരംഭങ്ങളെയൊക്കെ കുറേ വെല്ലുവിളികളൊക്കെ ഉണ്ട് നമ്മൾ ഈ സാധാരണ സ്ഥലത്തു നിന്ന് വലിയൊരു സ്ഥലത്തേയ്ക്ക് വച്ചടി കയറ്റം പെട്ടന്നുണ്ടാവില്ലല്ലോ അതൊക്കെ നേരിട്ട് വിജയത്തിൽ വന്നവരൊക്കെയാണ് വിജയത്തിൽ വന്നവരും ഉണ്ട് നമുക്ക് കിട്ടുന്ന കുറേ ചക്കയൊക്കെ നമുക്ക് കിട്ടുന്ന കുറേ ഇതാണ് അതിൻ്റെ കുറേ ലാഭങ്ങളുണ്ട് നല്ല വശങ്ങളൊക്കെ തേടി നമ്മളതിനെയൊരു ഒരു സംരംഭമാക്കിയെടുക്കുന്നു അതു വിജയിക്കുന്നു അതൊക്കെ എല്ലാം തരണം ചെയ്താലെ എല്ലാം ഉള്ളൂ